എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ഒഴിവ് സമയങ്ങളിൽ കൂട്ടുകാരുമായിട്ട് പുറത്ത് പോയിട്ട് കളിക്യ ചെയ്യാറ് ഇങ്ങനെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ കൂട്ടുകാർ ഉണ്ടാവും അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് അധികം ദൂരാവൂല്ല വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ചെറിയ സ്ഥലത്തിങ്ങനെ കളിസ്ഥലം ഉണ്ടാകും അപ്പോൾ ആ സ്ഥലത്തിങ്ങനെ ക്രിക്കറ്റ് കളിക്കും ഫുട്ബോള് കളിക്കും പിന്നെ ഒളിച്ചോ പ്രാന്തി പിന്നെ മണ്ണെത്തി പൊത്തി മണ്ണ് പൊത്തിയുള്ള കളി ഇങ്ങനത്തെ കളികളാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കളിച്ചിരിക്കണേ അപ്പോൾ അതെന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമയോട് ഒത്തിട്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സംസാരം അന്നൊന്നും ഫോണൊന്നും ഉപയോഗമൊന്നുമില്ലല്ലോ അപ്പോൾ നല്ല സംസാരം നല്ല കളിയും കുറിച്ച് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് രാത്രിയാവണേക്ക് മുൻപ് വീട്ടിൽ നിന്ന് അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും കളി സ്ഥലത്തേക്ക് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് വിളിക്കും ഇതൊക്കെ വളരെ വളരെ നല്ല കുട്ടിക്കാലത്ത് ഒഴിവ് സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് വല്ല ഒരു രൂപയും രണ്ട് രൂപയുമൊക്കെ കിട്ടിയതിന്നെ വല്ല ക്ലാസ്സൊന്നും ഇല്ലാത്തപ്പം ശനിയാഴ്ചകളിലൊക്കെ കളക്ട് ചെയ്യും ഇങ്ങനെ ഒരു രൂപ രണ്ട് രൂപ ഒക്കെ അവിടുന്നും ഇവിടുന്നുമൊക്കെ ആയിട്ട് എന്നിട്ട് ശനിയാഴ്ച് ഇങ്ങനെ കടയിൽ പോയിട്ട് സിപ്പപ്പൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഇരിക്കും ഇങ്ങനെ അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വളരെ വലിയ നല്ല നിമിഷങ്ങളായിരുന്നു പക്ഷേ ഇപ്പോഴത്തേതെന്ന് പറയുന്നത് ഇപ്പം കുട്ടികൾ വളരെ ഫോണിലാണ് അഡിക്ഷനാണ് ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യണില്ല ഫുൾ ടൈം ഫോണ് ഫോണിലാണ് അവരുടെ ലൈഫ് ഇപ്പോൾ ഉള്ളത് വളരെ ഡിഫറൻറ്റായി പക്ഷേ ഇത് ഒരു ഒരു കാലത്ത് അപകടം വളരെ വരെ സാധ്യത ഉള്ളൊരു കാര്യമാണ് ഫോൺ പക്ഷേ ആ സമയത്തുള്ള കുട്ടിക്കാലത്തുള്ള ഇങ്ങനെ ഒഴിവ് സമയത്തുള്ള വിനോദങ്ങൾ ഒക്കെ ഇപ്പം നഷ്ടപ്പെട്ടു പക്ഷേ അതാണ് നല്ലത് പഴയ ഒരു കാലഘട്ടത്തിലെ വിനോദങ്ങളിലേക്ക് ഇപ്പൊഴത്തെ പുതിയ പിള്ളേർ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പുറത്ത് പോയി കളിക്കുക കളക്റ്റ് ചെയ്ത് മേടിച്ച് കഴിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു വിനോദമായിട്ട് ഞാൻ ഒഴിവ് സമയത്ത് ഞാൻ ചെയ്തത്